ഞാനൊരു ബൈക്ക് യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അപ്പോളൊരു ബൈക്ക് യാത്ര ഞാൻ ശെരിക്കും പറഞ്ഞാൽ സ്വപ്നം കണ്ട് ഇതുവരെ പോകാൻ സാധിക്കാത്തൊരു സംഭവമാണ് എനിക്ക് ബൈക്കുണ്ട് അപ്പോൾ ഞാനൊരു ബൈക്ക് യാത്രക്ക് പോവുകയാണെങ്കിൽ ശെരിക്കും നമുക്ക് പോകുന്നതിന് മുൻപ് തിരുമാനിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പോകേണ്ട റൂട്ടുകളെ കുറിച്ച് നമുക്ക് ഏകദേശം നല്ല ധാരണ ഉണ്ടായിരിക്കണം ഇപ്പോൾ നമ്മള് ഒരു എവിടെയാ കാശ്മീര് പോകണം നമുക്ക് ആ റൂട്ടിനെക്കുറിച്ചും ഏത് വഴി നമുക്ക് പോകണം ഏത് വഴി പോയാൽ ഏറ്റവും എളുപ്പവഴി നമുക്കെത്തിച്ചേരാം അല്ലെങ്കിൽ നമ്മള് എളുപ്പ വഴി പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം നല്ല രീതീലുള്ളത് കണ്ട് പോകാം അവിടെ ചെന്നതിന് ശേഷം നമ്മൾ എന്തെല്ലാം കാണണം ഏതെല്ലാം റൂട്ടിലൂടെ നമ്മള് സഞ്ചരിക്കണം ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഗ്രാഹ്യം നമുക്കുണ്ടായിരിക്കണം നമുക്കെത്ര കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട് സഞ്ചരിക്കേണ്ടതിന് നമ്മുടെ വാഹനം സജ്ജമാണോ അതായത് ടയറ് അതിൻ്റെ ഭാഗത്തിൻ്റെ കണ്ടീഷൻ ഇവെയെല്ലാം സജ്ജമാണോ എന്ന് നമ്മള് പരിശോദിക്കുന്നുണ്ട് പിന്നെ ഇ പോകേണ്ടതായ കൊണ്ടുപോകേണ്ടതായ സാധനങ്ങൾ നമുക്കൊരുപാടുണ്ട് ആ സാധനങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാകണം നമുക്ക് ആവശ്യമായ സാധനങ്ങള് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ലായെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനാവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോകണം നമുക്ക് കുടിവെള്ളം വേണം പെട്ടെന്ന് ബൈക്ക് ഒരു പഞ്ചറാവുകയോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഇത് ഒന്നു സംഭവിച്ചാൽ നമുക്ക് ഫർസ്റ്റ് എയ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടൂൾസ് വേണം നമുക്കൊരു ഫർസ്റ്റ് എയ്ഡ് ബോക്സ് വേണം നമുക്ക് ചെറുതായിട്ടുള്ള എന്തേലും പരിക്കുകള് പറ്റിയാലും അതിന് പരിഹരിക്കാൻ പറ്റിയ മരുന്നുകളും കാര്യങ്ങളും വേണം അങ്ങനെ ഒരു കൃത്യമായ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു